കൃഷിയിടത്തിലോ വീട്ടുജോലി ചെയ്യുമ്പോൾ വീട്ടുജോലി ചെയ്യുമ്പോഴോ ഞാൻ ഞാൻ സ്വയം രസിക്കുന്നത് കൃഷി ഏതായാലും ഞാൻ ചെയ്യാറ് വളരെ കുറവാണ് കുറവെന്നല്ല ഞാൻ ചെയ്യാറില്ല വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും പാട്ട് കേൾക്കാറുണ്ട് പാട്ട് കേട്ട് കേട്ടുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അത്രയും ക്രൈസായിട്ടുള്ളൊരു കാര്യമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത് പാട്ട് കേട്ടു കൊണ്ട് ഞാൻ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവർത്തി എനിക്ക് കൂടുതൽ സ്പീഡിൽ ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടത്തോടുകൂടി ചെയ്യാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ മിക്ക വീട്ടുജോലികളും ചെയ്യുന്ന സമയത്ത് ഞാൻ പാട്ട് ഫോണിലോ സബ്ബിലോ അല്ലെങ്കിൽ സ്പീക്കറിലോ വെച്ചു കേൾക്കാറുണ്ടായിരുന്നു അതൊരു ഒരു തരം ഇഷ്ടമാണ് അതുകൊണ്ടു തന്നെ ഞാനത് വളരെ ആസ്വദിച്ചുകൊണ്ട് ആ ജോലി ചെയ്യും ഇപ്പം മടി വന്ന് മടിയെന്ന് പറയുന്നൊരു സംഭവം എന്നെ ചെ വളരെ സ എപ്പോഴും കൂടെ വരുന്ന ഒരു കാര്യമാണ് മടി മടി എൻ്റെ കൂടെ പിറപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ഒരു സാഹചര്യത്തിൽ വീട്ടുജോലി ചെയ്യാനും മടിയുള്ള സമയത്ത് ഞാൻ പാട്ടുകൾ വെക്കുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യാറുണ്ട് പിന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്തെ അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾ നാടൻപാട്ടുകൾ പാടുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അതവർക്ക് വേ വേഗത കൂട്ടാനും അവരുടെ ചെയ്യുന്ന ജോലിയിലുള്ള ഒരു ഇഷ്ട കൂടുതൽ അല്ലെങ്കിൽ അത് വളരെ മനോഹരമായി ചെയ്യാനും സഹായിക്കുന്നു